ഹലോ ഹലോ ഒരു ഒരു പ്ലം കേക്ക് വേണമായിരുന്നല്ലോ ഒരു കിലോൻ്റെ എന്തൊക്കെ ഫ്ലേവറാണ് ഉള്ളത്

മ്മ് മ്മ് ആ ഈ ബട്ടർ സ്കോച്ച് എങ്ങനെയാണ് വില വരുന്നത് എന്നാ വില ആണോ ആ ആണോ എത്ര എണ്ണംകിട്ടും റേറ്റ് ആ ഒരു ബർത്ത്ഡേയ്ക്ക് വേണ്ടിയായിരുന്നു മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയുള്ള ഓർഡർ ആയിരുന്നു

അത് ഹാപ്പി ബർത്ത്ഡേ അന്ന മോൾ എന്നൊക്കെ എഴുതണമായിരുന്നു

വൈറ്റ് മതി വൈറ്റ് ഷെയ്ഡിൽ ചോക്ലേറ്റ് വേണോ ചോക്ലേറ്റ് ഉണ്ട് ഫ്ലേവർ ചെയ്തു വൈറ്റ് ഐസിങ് എന്തോ മോൾക്ക് ഈ വൈറ്റ് ഫ്ലേവർ ആണ് ഇഷ്ടം ഹ് ഹ് മോൾക്ക് പതിനഞ്ചു വയസ്സ് അതായാലും കുഴപ്പമില്ല അത് എങ്ങനെ ആ വില എങ്ങനെ വരും അതിൻ്റെ റേറ്റ് ഹ് ഓ അതിച്ചിരി കുടുതലാണല്ലോ ഹ ചോക്ലേറ്റ് എന്നതാ ഈ കപ്പ്കേക്ക് തന്നെ ആണോ മ്മ് ആണോ ആ അതും ഇഷ്ടമാണ് അതു അങ്ങനെ പ്രിൻസെസിൻ്റെയൊക്കെ ഇങ്ങനെ എങ്ങനെ അത് പ്രിൻസെസ് കേക്ക് ആയിട്ടാണോ ആണോ ഈ സിൻഡ്രേള്ള മോഡൽ ഒക്കെ ഇല്ലേ അ ആ അത് തന്നെ അങ്ങനത്തെ ആണെങ്കിൽ കൊച്ചിന് വലിയ ഇഷ്ടമായിരുന്നു മ്മ് അപ്പം ആ എന്നാ അതുപോലത്തെ ഒരു കേക്ക് മതി അത് കൊണ്ടു വരാൻ കൊണ്ടു വരാൻ പറ്റുമോ നാളെ രാവിലെ ഹ് നാളെ രാവിലെ ഒരു പത്തുമണി ആകുമ്പോഴേക്കും കൊണ്ടുതരാൻ പറ്റുമായിരുന്നെങ്കിൽ നന്നായിരുന്നു ആണോ കൊച്ചിൻ ബേക്കറി ഹ ഹാ കൊച്ചിൻ ബേക്കറി അ ആ

ഹ ആണല്ലേ ഹ് ഹ തരേണ്ട ആ എന്നാൽ ഞാൻ കൊച്ചിൻ്റെ പപ്പായെ പറഞ്ഞു വിട്ടേക്കാം മ്മ് ഓട്ടോ ഉള്ളത് കാരണം വാങ്ങിക്കൊണ്ട് വരാമല്ലോ

മ്മ്

കൊടുക്കാം അല്ലേ ആ എന്നാൽ ഒരു മോതിരം ആയിക്കോട്ടെ ഒരു മോതിരം വച്ചു ഹ് ഹ് കുറച്ചും കൂടി നന്നായിട്ട് ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യണം കേട്ടോ അപ്പം കേക്കിനെ ഹ് ഹ് ആയിക്കോട്ടെ എന്നാ ശരി